ആരോഗ്യമുള്ളൊരു മൃഗമെന്നു പറയുമ്പോൾ ഒരു ആട് ആടിൻ്റെ ആകുമ്പോഴത്തേക്ക് അതിനു നല്ല ചെവി നമ്മൾ നല്ലതു നോക്കും പിന്നെ പൊക്കമുള്ളതാണോ അതിനു നീളമുണ്ടോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കിയാണ് നമ്മൾ സാധാരണ ഒരു മൃഗത്തിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നത് പക്ഷെ ഞാനാടിനെ എനിക്കാട് നേരത്തെ ഉണ്ടായിരുന്നു ആടിനെ വളർത്താൻ നേരം എനിക്ക് ഞാനതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളിനെയും കൊണ്ടാണ് നോക്കിയാണ് ആടിനെ മേടിച്ചത് അപ്പം നമുക്ക് അറിയാം അപ്പം അവരിങ്ങനെ പറയുന്നത് നമുക്ക് കേട്ടതാണ് ചെവി നല്ല നീളമുണ്ടോ അതിനു നല്ല നീ പുറം അതിൻ്റെ പുറം ഭാഗത്തിനു നല്ല നീളമുണ്ട് നല്ല ഇനമാണെന്നൊക്കെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഒരു മൃഗ ആടിനെ നമ്മൾ തിരിച്ചറിയുന്നത് ക്കുറിച്ച് എനിക്ക് അത്രയ്ക്കു വലിയ അറിവൊന്നുമില്ല എങ്കിലും കണ്ടാൽ നമ്മളൊരു ഭംഗി തോന്നിയാണല്ലോ നല്ല അയ്യോ അതിനെ കണ്ടാൽ നല്ലതാണെന്നു നമ്മൾ പറയുന്നത് എനിക്ക് യാത്രക്കുള്ള ഒരിതെ ഉള്ളു മൃഗത്തിനെക്കുറിച്ച് ആട് നല്ല തീറ്റ തിന്നുന്നതാണെന്നും തീറ്റ തിന്നുന്നതൊക്കെയാണെങ്കിൽ അതൊരു നല്ല ലക്ഷണമാണ് നല്ലത് വെള്ളം കുടിക്കാതെയും തീറ്റ തിന്നാതെയൊക്കെ ഇരിക്കുന്ന ഒരു മൃഗമാണെങ്കിൽ നമുക്ക് അത് ഓ അത് കൊള്ളത്തില്ല നല്ലയിനം അല്ലെന്ന് ഇനമല്ല എന്നു നമ്മൾ പറയും പിന്നെ നല്ലയൊരു പുല്ലും വെള്ളമൊക്കെ കുടിക്കുവാണേ എല്ലാ മൃഗങ്ങളും നല്ലതാണെന്നാണ് എൻ്റെ അഭി പിന്നെയൊരു ആടാകുമ്പോൾ നല്ല പാലു തരുന്നത് നല്ല ഇനമാണെന്നു പറയുന്നതു കേട്ടിട്ടുണ്ട് നല്ല ഇനം പാ നല്ല ഇനം ആടാണ് എനിക്ക് ആടിൻ്റെ പേരൊന്നും അറിയത്തില്ല എങ്കിൽത്തന്നെ പാല് തരുന്നത് മൃഗം നല്ലതാണ് എന്നു പറയുന്നു